ഹലോ ആ ഞാൻ രണ്ട് ദിവസം മുൻപ് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡറ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ അത് മറ്റേ ആപ്ലിക്കേഷനിൽ നമുക്ക് റദ്ദാക്കാൻ വേണ്ടീട്ടായിരുന്നു ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിന്ന് അവർ ചോദിക്കുന്നുണ്ട് അതെന്താ ഇങ്ങനെ റദ്ദാവാത്തേന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ഭക്ഷണ സാധനങ്ങൾ ഇതിനകത്ത്ന്ന് റദ്ദാക്കാൻ വേണ്ടീട്ടായിരുന്നു ആ ഓക്കേ അത് നിങ്ങളുടെ ആപ്ലിക്കേഷനോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവടിന്നനെ എൻ്റെ മൊബൈലിലോ ലാപ്പിലോ ഇരുന്നിട്ട് റദ്ദാക്കാൻ വേണ്ടീട്ടായിരുന്നു ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ അതായത് ആപ്ലിക്കേഷൻ ഏതായിരുന്നു പ്ലേ സ്റ്റോറിൽ അവൈലബിളാണോ അത് പ്ലേ സ്റ്റോറില്ലിലാല്ലേ ആ ഓക്കെ അങ്ങനെയാണെങ്കിൽ അത് എനിക്കൊന്ന് ഷേർ ചെയ്ത് തരാൻ പറ്റുമോ ആ ലിങ്ക്

ഓക്കെ നിങ്ങളൊന്ന് അത് അയച്ച് വിട്ടേക്ക് ഓക്കെ എന്നാൽ